ശ്രദ്ധ അർഹിക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ ട്രെൻഡുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മൈനായിട്ടുള്ള ഒരു ട്രെൻഡെന്ന് വെച്ചാൽ ഓൺലൈൻ ക്ലാസാണ് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കാലത്തൊന്നും ഞങ്ങളൊന്നും പഠിച്ച സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസെന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല അതായത് നമുക്കറിയല്ലായിരുന്നു ഓൺലൈൻ ക്ലാസ് എന്താണെന്ന് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ടൊക്കെ അതായത് കുട്ടികളൊക്കെ നമുക്ക് നോട്ടൊന്നും എഴുതാൻ നമ്മൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ പേജ് അത് ആ നോട്ടിൻ്റെ പേജ് നമുക്ക് പിന്നെ വാട്സ്ആപ്പ് വഴി അയച്ചു തരും നമ്മൾ എഴുതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ കൊറോണ വന്നേ പിന്നെയാണ് ഓൺലൈൻ ക്ലാസെന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രെൻഡ് വന്നത് ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നേയും നമുക്കിവിടെ നിപ്പ വന്നു നിപ്പ വന്നത് കൊണ്ട് നമുക്കിപ്പോൾ ഈ സെപ്റ്റംബറ് പിന്നെ എതോ ഒരു ഡേറ്റ് തൊട്ട് എതോ ഒരു ഡേറ്റ് വരെ നമുക്ക് ഓൺലൈൻ ക്ലാസാണ് അതുപോലെ കുട്ടികൾക്കൊന്നും ക്ലാസ് അതായത് നൽകുന്നില്ല എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത് കേട്ടത് ഇന്നത്തെ വാർത്തയിലാണ് പറയുന്നത് കേട്ടത് അപ്പോൾ അങ്ങനത്തെ പല പ്രശ്നനങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട് ഓൺലൈൻ പഠനം കൊണ്ട് പിന്നെ കുറേ പേർക്കൊക്കെ ഉപകാരമാണ് പക്ഷെ കുറെ കുട്ടികളൊക്കെ നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ പഠനം കൊണ്ട് പിന്നെ ഓൺലൈൻ ക്വിസുകൾ പിന്നെ അഭിമുഖങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ പഠനം അന്താരാഷ്ട്ര സഹകരണങ്ങൾ അങ്ങനെയുള്ളത് ഒക്കെ നമുക്കിപ്പോൾ ഓൺലൈനിലൂടെയാണ് അപ്പോൾ അതൊക്കെ പുതിയ ട്രെൻഡാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം